എറണാകുളത്ത് നിന്നാണ് കയറാൻ ആഗ്രഹിക്കുന്നത് അപ്പം എറണാകുളത്ത് എത്ര മണിക്കെത്തും ഞാനെത്ര മണിക്ക് അവിടെ എത്തണം അവിടെ എത്ര നേരം പിടിച്ചിടും ട്രെയിൻ പിന്നെ വേറെ ഏതെല്ലാം സ്റ്റേഷൻലുകൾല് പിടിച്ചിടും എത്ര സമയം കൊണ്ട് എത്തും ഡെൽഹീലേക്ക് പിന്നെ നമുക്ക് ട്രെയിൻലാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യം ഒക്കെ ട്രാവൽ ജൻസിയായി നിങ്ങൾ എറ്റിട്ടുണ്ടാവുമല്ലോ അപ്പം അതുംകൂടി ഒന്ന് നോക്കിയിട്ട് നമ്മളെത്ര മണിക്കാണ് ഇറങ്ങേണ്ടത് അവിടെ എത്ര മണിക്കെത്തണം പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് എന്തൊക്ക സൗകര്യങ്ങൾ ചെയ്ത് തരും പിന്നെ അധികം താമസിക്കുമോ ട്രെയിൻ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു